ഞാനല്ലാതെ എൻ്റെ വീട്ടില് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എല്ലാം പൂന്തോട്ട പരിപാലനത്തിൽ താല്പര്യമുള്ളവരാണ് അവർ ചെടികൾ നനയ്ക്കുന്നതിനും പുതിയ പുതിയ ചെടികളെല്ലാം വെച്ചു പിടിപ്പിക്കുന്നതിനും ചെടികൾക്ക് വേണ്ട വളം നൽകുന്നതിനും എല്ലാം എന്നെ സഹായിക്കാറുണ്ട് അവർ സ്വയമേ അവ ചെയ്യാറുമുണ്ട് എവിടുന്നെല്ലാം പുതിയ ചെടികൾ കിട്ടുന്നുവോ അതെല്ലാം സംഘടിപ്പിക്കുകയും അതെല്ലാം നല്ല രീതിയിൽ വയ്ക്കുകയും ചെയ്യാറുണ്ട് പുതിയ ചെടികൾക്ക് ആവശ്യമായ വളം ആവശ്യമായ എത്ര വെള്ളം എല്ലാം കൊടുക്കുന്നതിന് ഓരോരുത്തരും ആ സമയം പ്രത്യേകം പ്രത്യേകം സമയം കണ്ടെത്താറുണ്ട് എല്ലാവരും ഒരുമിച്ച് അതേപോലെ പൂന്തോട്ടവും പിന്നെ പച്ചക്കറിയും എല്ലാം വെയ്ക്കാറുണ്ട് പച്ചക്കറി എല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു പൂന്തോട്ടത്തിൽ വിവിധ തരത്തിലുള്ള ഡിസൈനൊക്കെ വയ്ക്കാറുണ്ട് ഡിസൈൻ ചെയ്ത് ടേബിൾ റോസുകൾ എല്ലാം വയ്ക്കാറുണ്ട്